ഹലോ നമസ്കാരം എനിക്ക് ഇല്ലേ ഞാൻ ഇപ്പോൾ അടിമാലിയിൽ ആണ് ഉള്ളത് എനിക്ക് മൂന്നാർ പോകണാമായിരുന്നു അപ്പോൾ ഹോട്ടലിലത്തെ ഇവർ ആണ് നിങ്ങളെ നമ്പറ് തന്നത്

ഞങ്ങൾ മൂന്ന് പേർ ഉണ്ടാവും ഞാനും എൻ്റെ ഭാര്യയും ഒരു കുട്ടിയും ഉണ്ടാവും അത് മനസ്സിലായില്ല സാറേ അതെ ഇന്ന് ഇന്ന് ഇന്ന് പോവുകയാണ് ഇന്ന് ഒരു മണി ആവുമ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ഒരു ഒന്ന് മുപ്പത് ആവുമ്പോൾ ഹോട്ടലിലേക്ക് വന്നാൽ മതി ആവും അടിമാലി ഹോട്ടലിൽ ആ മൂന്നാറിലേക്ക് പോകണം എത്ര ചാർജ് ആവും സാറേ അമ്മേ ഇത് എന്ത് ഞാൻ നിങ്ങളുടെ ഹോട്ടല് ചാർജ് അല്ല ചോദിച്ചത് ഓട്ടോയിൽ അവിടത്തേക്ക് പോവാൻ ഉള്ള ചാർജ് ആണ് ചോദിച്ചത് എന്നാലും ഇത് ഇത് എന്ത് ഇതാണ് ഇങ്ങനെ ടൈം എത്രയാണ് വച്ച് ഒരു ആയിരം ഉർപ്യക്ക് പോയിക്കൂടേ ആ മൂന്ന് പേരല്ല അല്ല ഒരാൾ ഒരാൾ മൂന്ന് പേരും ഒരേ പോലെ അല്ലേ ഇത് പോവുമ്പോൾ

ആ അത് കഴിഞ്ഞിട്ട് വീണ്ടും പോവുമ്പോൾ ഒരു സൈറ്റ് കിട്ടുന്നുണ്ടല്ലോ ഒരു സ്ഥലം അവിടെ നിന്ന് തന്നെ വരുമോ അപ്പോൾ അതിന് ഒന്നും വേറെ വെയ്റ്റിംഗ് ചാർജ് ഉണ്ടാവില്ലേ ആ അല്ല അന്ന് അയാൾ ശരി നമ്മൾ ഇപ്പോൾ ഒരു യാത്രക്കാർ അല്ലേ പിന്നെ ഒന്ന് മൂന്നാർ നമ്മളെ നാട് കാണാൻ വന്നതല്ലേ ചെറിയ ഒര് ഇത് ഒക്കെ ചെയ്യോ അപ്പോൾ ഇല്ല അപ്പോൾ നമ്മൾക്ക് ഞാൻ എല്ലാം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപക്ക് മതി ആവൂലേ ആ വെയിറ്റ് അത്രയും ഉണ്ടാവില്ല അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നേരം ഒരു ഫോട്ടോ എടുക്കാൻ ഉണ്ടാവും അത്രയേ ഉള്ളൂ ഓക്കെ എന്നാൽ എങ്കിൽ ശരി അല്ലേ ആ ഓക്കെ അപ്പോൾ ഉച്ചക്ക് ഒരു ഒരു മണിക്ക് എൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിൽ വന്നാൽ മതി ഓക്കെ ഓക്കെ ഞാൻ ഞാൻ ഇല്ലേ ഇല്ല സാറേ അത്രയേ ഉള്ളൂ ആ ഓക്കെ ശരി അപ്പോൾ താങ്ക് യു ആ ഒരു മണി ആവുമ്പോൾ ഹോട്ടലിലേക്ക് വന്നാൽ മതി നന്ദി